ആദ്യമായി നിങ്ങൾ ഏത് ബാങ്കിൻ്റെ അക്കൗണ്ട് ആണ് സ്ഥാപിക്കേണ്ടത് ആ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിംഗ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ലോഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ആദ്യം അത് കഴിഞ്ഞ് അത് ലോഗിൻ പ്രക്രിയ ഫസ്റ്റ് ഉണ്ടാകും അതിന് ആദ്യമായി ലോഗിൻ എന്ന ഭാഗത്തിൽ ചെന്നിട്ട് സൈൻ അപ്പ് എന്ന ഇതിൽ അമർത്തുക അതിന് ശേഷം നമ്മളുടെ ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുള്ള രെജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക അതിന് ശേഷം വേരിഫൈ ചെയ്യുവാനായി നമ്മൾക്ക് ഒരു ഒ ടി പി സംവിധാനം ഇങ്ങോട്ട് കിട്ടും ആ ഒ ടി പി ഉപയോഗിച്ച് നമുക്ക് അതിൽ വേരിഫൈ ചെയ്യാവുന്നതാണ് കൃത്യമായി നിങ്ങൾ ആ ഒ ടി പി അവിടെ അടിച്ചു കൊടുക്കുക അതിന് ശേഷം അത് നേരെ ചെല്ലുന്നത് ബാങ്കിങ് സംവിധാനത്തിലോട്ടാണ് ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് നമ്പറും അവിടെ കൃത്യമായി അടിച്ച് കൊടുക്കുക ഡെബിറ്റ് കാർഡ് നമ്പർ തെറ്റാതെ കൃത്യമായി അടിക്കണം തുടർന്ന് നിങ്ങളുടെ കൺസ്യൂമർ നമ്പറും എ ടി എം ഡെബിറ്റ് കാഡിൻ്റെ പുറകിലുള്ള മൂന്ന് അക്ക സംഖ്യയും അവിടെ കൃത്യമായി അടിച്ചു കൊടുക്കുക തുടർന്ന് പോകുന്ന ഇതിൽ നിങ്ങളുടെ എം പിൻ സംവിധാനം ശരിയാക്കുവാനായുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അതിനായി നിങ്ങൾ നിങ്ങളുടെ ബയോമെട്രിക്സ് കൊടുക്കേണ്ടതാണ് ബയോമെട്രിക് സംവിധാനം വേരിഫൈ ചെയ്യുവാനായി നിങ്ങളുടെ ഫോണിലെ ഫിംഗർ പ്രിൻറ് സംവിധാനം ഉപയോഗിക്കുക അല്ലാതെ ബയോമെട്രിക്സ് അല്ലാതെ നിങ്ങൾക്ക് എം പിൻ പാസ്വേർഡ് സെറ്റ് ചെയ്യാനും ഓപ്ഷനുകൾ ധാരാളമുണ്ട് ഇനി നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സ്വന്തമായി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഇതുവഴി എളുപ്പത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാനും നമ്മളെ സഹായിക്കും